ഗതാഗതം എന്ന് പറഞ്ഞാൽ പഴയ സിസ്റ്റത്തിലുള്ള റോഡുകളൊക്കെ മാറ്റി പുതിയ രീതിയിലുള്ള റോഡ് നിർമ്മാണം ഗതാഗതം സുഗമമാക്കുക ഗ്രാമീണ നിവാസികൾക്ക് എപ്പോഴും പോവാനും വരാനും ഉള്ള വാഹനസൗകര്യങ്ങളുണ്ടാവുക യാത്ര ചെയ്യാനുള്ള ചെറിയ ചെറിയ വാഹനങ്ങൾക്ക് അവർക്ക് കിട്ടാൻ ഉള്ള നടപടികൾ ഗവൺമെന്റിൻറെ ഭാഗത്ത് നിന്ന് ലോണായിട്ടോ വായ്പ്പയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ചെറിയ ചെറിയ വാഹനങ്ങളുപയോഗിക്കാനുള്ള സൌകര്യം ചെയ്തുകൊടുക്കുക അതുപോലെത്തന്നെ റോഡ് വീതി കൂട്ടി വലുപ്പം വർദ്ധിപ്പിക്കുക ഇന്നത്തെ കാലത്തെ പറഞ്ഞ് കഴിഞ്ഞാൽ വാഹനങ്ങളുടെ പെരുപ്പുവും റോഡ് അപര്യാപ്തവുമാണ് അത് ഗ്രാമീണ തലത്തിൽ വളരെ അധികമാണ് ഇപ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ ഗ്രാമീണ റോഡ് വികസന പദ്ധതി പ്രധാനമന്ത്രിയുടെ വന്നിട്ടുണ്ട് അതും സർ കേരള സർക്കാരിനെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനസർക്കാരുകളുടെ വിഹിതം ചേർക്കേണ്ടതുകൊണ്ട് പകുതിയിലധികം ചെയ്യാൻ മടിക്കുകയാണ് കാരണം കാശില്ല ആ സ്ഥാനത്ത് നടക്കുന്ന പദ്ധതികൾ നല്ല രീതിയിൽ കേന്ദ്രം നേരിട്ട് നടത്തുന്ന പരിപാടികൾ നന്നായി നടക്കുന്നുണ്ട് സ്റ്റെയിറ്റ് ലെവലിൽ അത് നടത്താൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടെന്നുപറഞ്ഞാൽ അതിനൊക്കെ വളരെയധികം അഴിമതികളുള്ളതുകൊണ്ട് ഒന്നും പൂർണമായും നല്ലരീതിയിൽ നടക്കുന്നില്ല അതൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള നിർമ്മാണപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അതിനായുസ്സും കുറവാണ് അതിൻ്റെ നടത്തിപ്പിനും കൃത്യമായിട്ട് യാതൊരു വിധ ആളുമില്ല നോക്കാനും പറയാനുമൊന്നും ചോദിക്കാനും ഇല്ല എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് എം എൽ എ എം പിയുടെ ഫണ്ടിൽ നിന്ന് എം പി സർക്കാരില് കോട്ട അത് അങ്ങനെ അത് കിട്ടുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും സർക്കാർ കൃത്യമായി ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കേന്ദ്രഗവൺമെൻറ് പദ്ധതികളാണ് കൃത്യമായി നല്ല രീതിയിൽ നടക്കുന്നുള്ളൂ അതില് മാത്രമേ അഴിമതി കുറവുള്ളൂ